ഞാനോൺലൈനിൽ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഷൂ വാങ്ങിയതാണ് ആ വാങ്ങി രണ്ട് ദിവസം കൊണ്ടൊക്കെ ഡെലിവറി കിട്ടി പക്ഷേ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ഉപയോഗിച്ച് നോക്കിയപ്പോഴാണ് ഒരു കംഫോർട്ട്നെസ്സുമില്ല രണ്ടു മൂന്നു ദിവസം കഴിഞ്ഞിക്ക് അതിൻ്റെ താഴെയുള്ള സോൾ ഇളക്കി പോന്നു പിന്നെ ഞാനത് കഷ്ടിച്ചെങ്ങനെയൊക്കെയോ റിപ്പയർ ചെയ്തുപയോഗിച്ചപ്പോൾ പിന്നെയും ഒരു കംഫോര്ട്ട്നെസ്സ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇല്ല ഞാൻ രണ്ടു മൂന്നു ദിവസം ഒരു പത്തു ദിവസം കൂടെ ഉപയോഗിക്കുക എന്നുവെച്ചാൽ നോക്കുമ്പോൾ എന്നു കരുതി അപ്പോൾ അതു കഴിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് റിട്ടേൺ ചെയ്യാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണല്ലോ റിട്ടേൺ ചെയ്യാൻ ഓപ്ഷനില്ല അപ്പോൾ അങ്ങനെ ആകെ കുടുങ്ങി പോയല്ലോ ഇങ്ങനൊരു പ്രോഡക്റ്റ് ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല ഇന്നത് എനിക്കത്രേ ഇപ്പതെന്താണതിൻ്റെ പിന്നെ പ്രശ്നമെന്നെനിക്ക് മനസ്സിലായില്ല ഇത്രയും ഒരു യൂസ്ലെസ്സായിട്ടുള്ള സാധനം ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല